ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലം നേപ്പാളാണ് ഞാനും ഞാൻ മാത്രമല്ല ഞാനും അതുപോലെ എൻ്റെ കുടുംബവും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ അയൽ രാജ്യം കൂടിയാണ് നേപ്പാൾ അവിടെയാണെങ്കിൽ ഹിമാലയത്തിൻ്റെ സൈഡ് സൈഡ് ആയതുകൊണ്ട് അവിടെ അവിടത്തെ കാലാവസ്ഥ അടിപൊളി ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പിന്നെയോ നേപ്പാളിൽ കുന്നുകളും മലകളും കാടുകളും എല്ലാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് നേപ്പാൾ കാണാൻ ആഗ്രഹം ഉണ്ട് പിന്നെ അവിടെ എൻ്റെ കു ബന്ധുക്കളും എല്ലാവരും അവിടെയാണ് താമസിക്കുന്നത് അവർ നേപ്പാളിനെ കുറിച്ചും അവിടുത്തെ കാലാവസ്ഥയെ കുറിച്ചും എപ്പോഴും വർണ്ണിക്കുന്നത് കേൾക്കുമ്പോഴും നമുക്കും ഒരു ആഗ്രഹം തോന്നും നേപ്പാൾ എങ്ങനെയാണ് അവിടത്തെ കാലാവസ്ഥ എങ്ങനെയാണ് അതെല്ലാം കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് എനിക്ക് എന്തായാലും നേപ്പാളിൽ പോകണം ഞാൻ മാത്രമല്ല ഞാനും എൻ്റെ കുടുംബവും നേപ്പാളിൽ പോകാൻ ആഗ്രഹിക്കുന്നു പിന്നെ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മുടെ ഇവിടുന്ന് കുറച്ച് കുറച്ചധികം വ്യത്യസ്തമാണ് അവിടുത്തെ ആചാരങ്ങളെല്ലാം അതുകൊണ്ട് എനിക്ക് അവിടുത്തെ ആചാരങ്ങൾ എങ്ങനെ ആന്ന് അറിയാനും അത് കാണുവാനും വലിയ ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും ഓരോരോ ആചാര മാറ്റം സംഭവിക്കുമ്പോൾ അത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടിട്ട് വലിയ ഇഷ്ടം ആയിരിക്കും പിന്നെ ആണ് ലൂമ്പിയ ലൂമ്പിയ എന്ന് പറയുന്ന സ്ഥലം നേപ്പാളിലാണ് അത് ബുദ്ധൻ്റെ ജന്മസ്ഥലമാണ് നമ്മൾ പണ്ട് കാലത്ത് ബുക്കിൽ ഒക്കെ പഠിച്ചിട്ടുണ്ട് ബുദ്ധൻ ബുദ്ധനെ കുറിച്ച് എല്ലാം പഠിച്ചിട്ടുണ്ട് ലൂമ്പിയ ജന്മസ്ഥലമാന്നൊക്കെ പഠിച്ചിട്ടുണ്ട് പക്ഷേ ലൂമ്പിയ അത് ബുക്കിൽ പഠിച്ച നമുക്ക് നേരിട്ട് കാണുമ്പോളുള്ള ഒരു ആഗ്രഹം നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത് വളരെ ഒരു നല്ല കാര്യമാണ് അതുകൊണ്ട് ബുദ്ധൻ്റെ ജന്മസ്ഥലം ആയ ലൂമ്പിയ കാണാൻ ആഗ്രഹമുണ്ട് അത് രണ്ടായിരം വർഷം പഴക്കമുള്ള അവിടുത്തെ പുരാതന വസ്തുക്കളും പിന്നെ നിർമ്മിച്ച കുടിലുകളും എല്ലാം അവിടെ കാണാൻ പറ്റും ലൂമ്പിയയിൽ പിന്നെയുള്ളതാണ് അവിടുത്തെ ഉദ്യാനം ഉദ്യാനം എന്ന് വെച്ചാൽ ചിത്താണ് ഉദ്യാനം അവിടെ വന്യജീവികളെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിനായിട്ട് ഉണ്ടാക്കിയതാണ് ഒരു ചിത്താൻ ഉദ്യാനം ഇപ്പോൾ നമ്മൾ പണ്ട് ബുക്കിൽ പഠിച്ച പോലെ ഏറ്റവും വലിയ കൊടുമുടി അതായത് അതേതാണ് എവറസ്റ്റ് കൊടുമുടി അതും അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നേപ്പാളിൽ അപ്പോൾ നമുക്ക് എവറസ്റ്റ് കൊടുമുടി നേരിട്ട് കാണാൻ പിന്നെ ആഗ്രഹമുണ്ടാകും അപ്പം അത് എത്ര ഉയരത്തിലാണ് എങ്ങനെയാണ് അതിൻ്റെ ഭംഗി അതൊക്കെ നേരിൽ കാണാനും ആഗ്രഹമുണ്ട് അതുകൊണ്ട് എനിക്ക് നേപ്പാളിൽ നേപ്പാളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും നേപ്പാളിൽ പോകണം എന്ന് വലിയ ആഗ്രഹമുണ്ട്